ഹലോ ഇത് ഗ്യാസ് ഓഫീസല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എൻ്റെ വീട്ടിൾ ഒരു വീടിരിക്കലുണ്ട് അതിന് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ അത്യാവശ്യമായിട്ട് കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യണം അപ്പോൾ അത് ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്യാസ് ഓഫീസിലേക്ക് വിളിച്ചത് അപ്പം നിങ്ങൾ എനിക്ക് ഗ്യാസ് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു സിലിണ്ടറേ ഉള്ളു അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒപ്പം എനിക്ക് രണ്ടാമത്തെ സിലിണ്ടർ നൽകണം എൻ്റെ വീടിച്ചേര് രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ സമയം ആകുമ്പോഴേക്ക് നിങ്ങൾ എനിക്ക് ഗ്യാസ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഗ്യാസ് ബുക്കിങ്ങിൻ്റെ റെഫറൻസ് നമ്പറ് ഒ എട്ട് ഒൻപത് ആറ് ഏഴ് അഞ്ച് നാല് ആണ് എൻ്റെ ആധാർ കാർഡിൻ്റെ അവസാനത്തെ നാല് അക്കം നമ്പറ് ഒൻപത് അഞ്ച് നാല് രണ്ട് ആണ് അപ്പോൾ ഈ നിങ്ങൾ ഈ രണ്ട് നമ്പറും കൂടി ലിങ്ക് ചെയ്ത് എനിക്ക് അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ തരുമെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി